പാചകം ഒരു തൊഴിൽ ആയിട്ട് ഏറ്റെടുക്കാൻ അതായത് സ്കൂളുകളും പിന്നെ ഞങ്ങള് പഠിപ്പിക്കുന്ന സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡ് അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പാചകം എല്ലാം കുടി പഠിപ്പിക്കുന്ന ഫീൽഡ് ആണ് നമ്മുടെ ഹോട്ടൽ മാനേജ്മന്റ് പിന്നെയെന്ന് വെച്ചാൽ വീട്ടമ്മമാർക്ക് ഒക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒക്കെ വീട്ടമ്മമാർക്ക് ഒരുപാട് അങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതയാണ് അപ്പോൾ എനിക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് കുടുംബശ്രീയിലെ പാചകം പരിപാടി അതായത് അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുമുണ്ട് പ്രൈസ് മേടിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അതൊക്കെ നല്ലൊരു സംരംഭം തന്നെയാണ് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാചകം ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളും ഒന്നും പോവണ്ട നമ്മൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തെങ്കിൽ നമ്മൾ എന്താ സെർച്ച് ചെയ്യുന്നത് അത് നമ്മൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾക്ക് കിട്ടും അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുതന്നെ നമുക്ക് ഇപ്പോൾ പഠിപ്പിക്കുന്ന ആ ഒരു സംഭവം ഒന്നും വേണ്ട ഇപ്പോൾ പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ പിന്നെ കേക്ക് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ ഉള്ള ക്ലാസുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ അല്ലാതെ എല്ലാം നമുക്ക് നമ്മുടെ ഫോണിൽ അതായത് നമ്മുടെ ഈ ഒരു ടച്ചിന്റെ ഫോണും നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നമ്മളെ കണ്മുന്നിൽ അവൈലബിൾ ആണ്